എൻ്റെ ജീവിതകാലത്ത് സംഭവിച്ച പ്രധാന സാങ്കേതികവിദ്യ എന്ന് പറയണത് ഐ ടി മേഖലയിലാണ് പഴയ തരത്തിലുള്ള എല്ലാവിധ വാർത്താവിനിമയ രംഗത്തുമൊക്കെ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുണ്ടാക്കി ജോലി സാധ്യതകളിൽ മാറ്റങ്ങളുണ്ടായി പരസ്പരം നേരിൽ കണ്ട് പറയാൻ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ്റെ സഹായം ഇല്ലാതെ തന്നെ കാര്യങ്ങൾ എത്തി ഞൊടിയിടയിൽ കാര്യങ്ങള് ലോകത്തിൻ്റെ ഏത് അറ്റത്തേക്ക് വേണേൽ എത്തിക്കാനുള്ള ഒരു സാങ്കേതികവിദ്യ വികസിച്ചു അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥാ പ്രവചനത്തിലും വളരെയധികം മാറ്റങ്ങളുണ്ടായി ജോലി സ്ഥലത്ത് ചെന്നില്ലെങ്കിലും വീട്ടിലിരുന്നിട്ടാണെങ്കിലും ജോലി ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഐ ടി മേഖല നമ്മളെ കൊണ്ടെത്തിച്ചു ഏറ്റവുമധികം ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഫോണുകളാണ് അതില് തന്നെ പഴയതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ തരം ഉള്ള ഐഫോണുകൾ വരെ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നേരിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങള് പറയാനും അല്ലെങ്കിൽ അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ഇരുന്ന് കൊണ്ട് സ്വന്തം നാട്ടില് വീട് പോലും നിർമിക്കാനുള്ള ഒരു സൗകര്യം വരെ എത്തിക്കുകയുണ്ടായി ആർക്കും ആരെയും കാണാതിരിക്കാൻ ഏതെങ്കിലും കാരണവശാൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ചെന്ന് പെട്ടാൽപോലും നമ്മുടെ സാങ്കേതികവിദ്യ അനുസരിച്ച് അവർക്ക് നമ്മളെയും നമുക്ക് അവരേയും കണ്ട് സംസാരിക്കാനുള്ള ഒരു ജീവിതരീതി വരെ എത്തി അതുപോലെ തന്നെയാണ് സാങ്കേതികവിദ്യ കൊണ്ടുണ്ടായ ഉണ്ടായത് വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി റോഡുകളുടെ കാര്യത്തിലായാലും ശരി വളരെയധികം മാറ്റങ്ങളുണ്ടായി അപ്പോൾ അതൊക്കെ നമ്മുടെ ജോലി സ്ഥലത്തേയും ബാധിച്ചിട്ടുണ്ട് ജോലി സ്ഥലത്തിലും അതിൽ അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി പലരും പഴ പഴയ ജോലികളൊക്കെ വിട്ട് പുതിയ ജോലികൾ തേടി ജോലികൾക്ക് പുതിയ ജോലികളെ തേടി അതിൽ വർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായി അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി എൻ്റെ സ്വന്തം ബിസിനസ്സായത് കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാം എങ്കിലും എനിക്കതിൽ വളരെ അധികം സാങ്കേതികമായ സൗകര്യങ്ങളുണ്ടായി